ഹലോ ഫ്ലിപ്പ്കാർട്ടല്ലേ ഞാൻ ആദ്യം ഞാനൊരു സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ലാപ്ടോപ്പ് ഒരു മൊബൈൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും കിഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നേ അതേ അല്ലെ ആ ആ അപ്പം അതിനെനിക്ക് ആ കൂപ്പണൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ അതിന് ഫിഫ്റ്റി പേഴ്സെന്റെജ് ഓഫെന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു നെക്സ്റ്റ് ഓർഡർന്ന് പറഞ്ഞിട്ട് അപ്പം അതീ ഇപ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിന് കിഴിവും കാര്യങ്ങളൊക്കെ ലഭിക്കുമോ ഉണ്ടാവുമല്ലേ ആ ഓക്കേ ആ എട്ടാം തീ കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബില്യൺ ഡേയ്സ് തുടങ്ങുവല്ലേ അപ്പോൾ ആ ടൈമിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വേണമെങ്കിൽ ഇതിൻ്റെ കൂപ്പണിന്റെ ഇതും കൂടെ നമുക്കിതിനകത്ത് ലഭികുമല്ലേ ലഭികുമല്ലേ ഓക്കേ ഓക്കേ ആ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ആഡ് ചെയ്യുക ആ നമ്പർ ഒരു കൂപ്പൺ കോഡുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റഫറൽ നമ്പർ തന്നിട്ടുണ്ട് അത് നമ്മൾ ഇത് അടിക്കുന്നതിനകത്ത് അവിടെ ചേർക്കാനുള്ള ഇതുണ്ടോ ഉണ്ട് അതിനകത്ത് ചേർത്താൽ മതിയല്ലേ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ ടാങ്ക് യൂ